മറ്റു മതങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാ ഈ ഈ ഓണം എന്നു പറയുന്നത് ഒരു പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്ക് ഉള്ള ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഓണം ഓണം എന്നു പറയുന്നത് പണ്ട് ചെറുപ്പ കാലം തൊട്ടേ ഓണത്തിന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും പണ്ടെന്നു പറയുന്ന ഓണം പത്തു ദിവസം അവധി ഉണ്ടല്ലോ ആ പത്തു ദിവസം അവധിക്ക് പിള്ളേരെല്ലാം കൂടി ഒരുമിച്ചു കൂടി എല്ലാം ഊഞ്ഞാൽ കെട്ടി ഊഞ്ഞാലാടും പിന്നെ അത്തപൂക്കളമൊക്കെയിടും പിന്നെ അടുത്തുള്ള വീട്ടിലെ പിള്ളേരെല്ലാം കൂടെ വരുമ്പം നമ്മൾ ഉപ്പേരിയെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു കഴിക്കും അപ്പൊരു മതസൗഹാർദ്ദം പോലെയാണ് ഇതിപ്പം ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്തിയാനിയെന്നോ ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് കൂടും പക്ഷേ സാധാരണ ഹിന്ദുക്കളയാണ് ഓണം മാവേലി വാ വാണു കൊണ്ടിരുന്ന സമയത്ത് വാമനൻ വന്നു വാമനനെ ചവിട്ടി താഴ്ത്തി എന്നുള്ളൊരു പ പ്രൈ പ്രതീകമാണ് അവർ ഓണമായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ ആ ഓണം ഒരു എന്നാൽ പണ്ടത്തെ ഒരു എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഓണത്തിന് ഈ മറ്റുള്ള ഉത്സവ ഉത്സവങ്ങളൊക്കെ എന്നു പറഞ്ഞാൽ ഈ കുമ്പോടം അങ്ങനെയൊക്കെ ഈ ഹിന്ദുക്കളുടെ ഉത്സവങ്ങളുണ്ട് അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചെറുപ്പത്തിലേ ഈ കുമ്പോടത്തിനൊക്കെ വരുമ്പോഴത്തേന് പിന്നെ ഒത്തിരി ഒത്തിരി ഈ ആൾക്കാർ നോക്കു ഈ കുമ്പോടം ഒക്കെ എടുത്തു കൊണ്ടു വരും അപ്പോൾ അതിനകത്ത് ഇങ്ങനെ തലയിൽ വെച്ചു കാവടി പോലെ ഇങ്ങനെ വലിയ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പൂക്കളും ഒക്കെയായിട്ട് കാവടി ഇങ്ങനെ വെച്ചു കൊണ്ടു വരുമാ അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണത് പിന്നെ അതിനകത്ത് ആനയൊക്കെ കാണും ആനയൊക്കെ കാണുമ്പോൾ പേടിയാണ് എങ്കിലും അതൊക്കെ കാണാൻ പോയി നിൽക്കാറുണ്ട് പിന്നേ ഈ ശൂലം ഒക്കെ വെച്ച് ദേഹത്തെല്ലാം തറച്ചു കയറ്റിയിട്ട് അവരിങ്ങനെ പോകും പക്ഷെ അതല്ലേ കള എല്ലാവരും നല്ല ഇതൊക്കെയിട്ട് അവരുടെ സാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ടൊക്കെ നല്ല രസമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനതൊക്കെ പോയി എപ്പോഴും നോക്കി നിൽക്കാറുള്ള കാര്യ ഇപ്പോഴാണെങ്കിലും വെലുതായിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഓണം എന്നു പറയുന്നത് ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു നല്ലയൊരു ഉത്സവം തന്നെയാണ് ഓണം എന്നു പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു പിള്ളേർക്കൊക്കെയാണേൽ അവധി കിട്ടും പത്തു ദിവസം എവിടെയെങ്കിലൊക്കെ പോകണം ആരുടെയേലൊക്കെ വീടുകളിലൊക്കെ പോകും അപ്പെല്ലാവരുമായിട്ട് ഇങ്ങനെ അടിച്ചും പൊളിച്ചും ഇങ്ങനെ എവിടെയേലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും അങ്ങനെയൊക്കെ ഒരു പ്രതി ഇതാണ് വീട്ടിലാണേൽ എല്ലാവരും ഇപ്പോൾ ബന്ധുക്കാരൊക്കെയാണേൽ എല്ലാവരും വീട്ടിൽ വരും ഒരുമിച്ചു വരും ഒരുമിച്ച് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും ഒരുമിച്ച് പിള്ളേരെല്ലാം കൂടി കളിക്കും അതെല്ലാം ഒരു ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു ഒരു സംഭവമാണ് പിന്നേ വേറെ പിന്നെ വേറെ മാറ്റ് വേറെ വിഷുവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഓണം പോലെ തന്നെയാണ് വിഷു വിഷു ആകുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഭക്ഷണം ആണ് മെയിനായിട്ട് എല്ലാ വീട്ടിലും ഒരേപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുപ്പേരിയും കാവറുത്തതും പിന്നെ പഴവും പായസവും പപ്പടവും എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിച്ച് അതു നല്ല ഒരു അനുഭവമാണ് ഓണത്തിനെപറ്റി ഇങ്ങനെ ഓർക്കുമ്പോഴും വിഷുവിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോഴും അങ്ങനെ ഉള്ള ഉത്സവങ്ങളൊക്കെയാണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്